നിങ്ങളുടെ അടുത്തുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ചെമ്പ്ര പീക്ക് ബാണാസുര സാഗർ ഡാം കർലാട് ലേക്ക് തിരുനെല്ലി ടെമ്പിൾ മുത്തങ്ങ വൈൽഡ്ലൈഫ് സാങ്ച്വറി മുനീശ്വരൻ ഹിൽസ് തോൽപ്പെട്ടി വൈൽഡ്ലൈഫ് സാങ്ച്വറി